അ ഞാൻ ഈ എൽ കെ ജി അതേപോലെ രണ്ടാം ക്ലാസ്സിലേക്കും അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിനെ പറ്റി അറിയാൻ വേണ്ടി വന്നതാണ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അ അവിടെ എന്തൊക്കെയാണ് ആവശ്യം വരിക എടുക്കുവാണെങ്കില്

ഓക്കെ ഓക്കെ അവിടെ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമോ ഓക്കെ ഓക്കെ അ അ ഈ ഞാന് അതേപോലെ യൂണിഫോമും കാര്യങ്ങളൊക്കെയോ ഓക്കെ അപ്പോൾ അതിനു എക്സ്ട്രാ ക്യാഷ് കൊടുക്കേണ്ടി വരുമോ അധികം നമ്മളിപ്പം അഡ്മിഷൻ എടുക്കുമ്പോൾ കൊടുക്കുന്ന ആ ഫീ തന്നെ

അ ഓക്കെ ഇല്ലേ ഓക്കെ അ ഓക്കെ ഓക്കെ